നെയ്ത്തും തുന്നലും നമ്മളുടെ ജീവിതമാർഗ്ഗം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതരീതി അല്ലെങ്കിൽ ജീവിതം മുന്നോട്ടു കൊണ്ടുപോവാൻ നമ്മൾ ഏറെ ആശ്രയിക്കുന്നത് ഈ നെയ്ത്തും തുന്നലുമാണ് അതുവഴി നമുക്ക് ആവശ്യത്തിന് പണമെന്നല്ല പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതം വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമ്മൾക്ക് മുന്നിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടി സാധിക്കാറുണ്ട് നൂല് വെച്ചിട്ടൊക്കെ ആ നെയ്ത്തുമായിട്ട് പണിയെടുക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ നേരിടാറുണ്ട് പക്ഷെ നമ്മളുടെ ജീവിതരീതി അല്ലെങ്കിൽ ജീവിതമാർഗ്ഗം എന്നു പറയുന്നത് ഈ നെയ്ത്തും അല്ലെങ്കിൽ തുന്നിലുമൊക്കെയാണ് അപ്പോൾ അത് ആ ആ രീതിയ്ക്ക് നമ്മൾ ചെയ്ത് മുന്നോട്ടു കൊണ്ടുപോയാലേ നമുക്ക് എവിടെയെങ്കിലും എത്താനും നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനും ആവുകയള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനാൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോവുകയല്ലാതെ വഴിയില്ല എന്നതുകൊണ്ട് നമ്മൾ ഈ ജോലി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നെയ്ത്തും തുന്നലും ചെയ്യുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ അത്ര നെയ്യുന്ന തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന് താരതമ്യേന എന്താണ് മറ്റുള്ള നമുക്ക് വിറ്റഴിക്കാൻ വേണ്ടിയൊക്കെ കുറച്ച് പ്രയാസങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത് പിന്നെ തുന്നലെന്നു പറയുമ്പോൾ ഇപ്പോൾ അധികം ആൾക്കാരും നമ്മൾക്ക് തുന്നൽ നമ്മൾക്ക് തരാറില്ല റെഡിമെയ്ഡായിട്ട് സാധനങ്ങൾ വാങ്ങുന്ന അല്ലെങ്കിൽ വസ്ത്രങ്ങൾ വാങ്ങി ധരിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പണ്ടത്തെ അത്ര തുന്നൽ സൗകര്യങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല പിന്നെ തുന്നി ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ മാത്രമാണ് നമുക്ക് തുന്നാൻ വേണ്ടി നമുക്ക് ലഭ്യമാകാറുള്ളത് പക്ഷെ പണ്ട് പഴയകാലത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോഴും തുന്നി ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ ഇപ്പോഴും അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾക്കതൊരു മേൽക്കോൽമയും നേട്ടവുമാണ് പിന്നെ നെയ്യുന്നത് അധികവും നെയ്ത്ത് വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതും പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ ആൾക്കാർ അധികവും നെയ്ത്ത് വസ്ത്രങ്ങൾ ഉപയോഗിക്കാറില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഈ ഒരു വസ്ത്രം ധരിക്കാതെ ഇരിക്കുന്നതുകൊണ്ട് അത് നമ്മൾക്ക് പണം ലഭിക്കുന്ന അല്ലെങ്കിൽ പണത്തിൻ്റെ ഒരു കുറവ് അനുഭവപ്പെടുന്നതിനൊരു കാരണമായിട്ടുണ്ട് പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ താല്പര്യത്തോടെ ചെയ്യുന്ന നെയ്ത്തും അതുപോലെതന്നെ തുന്നലും നമുക്ക് എപ്പോഴും ചെയ്യാൻ വളരെ താല്പര്യമാണ് അത് എത്രത്തോളം തുണി അല്ലെങ്കിൽ എത്രത്തോളം തുന്നലെടുത്താലും അല്ലെങ്കിൽ നെയ്താലും നമ്മൾക്കും അത് നമ്മളുടെ ജീവിതത്തിലും അതുപോലെതന്നെ വളരെ സന്തോഷമായിരിക്കാനും ഒക്കെ അതൊരു പ്രാധാന്യം നൽകുന്നുണ്ട് എത്ര പറഞ്ഞാലും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ആ ജോലി മുന്നോട്ട് കൊണ്ടുപോവും